ഹലോ പറഞ്ഞോളൂ ആരാണ് വിളിക്കുന്നത് അതെ അതെ ജോബിയാണ് സംസാരിക്കുന്നത് ഓക്കേ ഓഹ് ഓഹ് ഓഹ് ഓഹ് അതിന് ക്യാബ് വേണോ സാറെ റെയ്റ്റ് നമ്മൾ ഇപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പാലക്കാട് തന്നെ ദ്വാരകയിൽ നിന്ന് സാറേ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ഉണ്ടാവും നമ്മൾക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഞാൻ സെവൻ സീറ്ററിൻ്റെ ഒരു ക്യാബ് ആണെങ്കിൽ നമുക്കൊരു പന്തീരായിരം രൂപ ആ റേഞ്ചിൽ പോവാം ഇനിയും അതല്ല കൂടുതൽ പേർക്കുള്ള നമുക്ക് ട്രാവലറോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ വിത്ത് വിത്ത് ഏ സി ആണെങ്കിൽ പതിനഞ്ച് രൂപ വരെയൊക്കെ ആവും അഞ്ചു പേരെ ഉള്ളു അല്ലേ അഞ്ചു പേരാവുമ്പോൾ ഫൈവ് സീറ്റർ ആയാലും മതിയല്ലോ ഫൈവ് സീറ്ററാണെങ്കിൽ സാറേ ഇച്ചിരി കൂടെ അത് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റും പത്ത് രൂപയ്ക്ക് പോവാം പതിനായിരം രൂപയ്ക്ക് പോവാം ആ പതിനായിരം രൂപയും പിന്നെ ഡ്രൈവറിൻ്റെ ബാറ്റയും ബാറ്റ എക്സ്ട്രാ വരും അപ്പോഴത് പിന്നെ ഈ ഭക്ഷണം ഇല്ല സാർ ഭക്ഷണം നിങ്ങൾ അതൊക്കെ ആ അത് വേണം അതിപ്പം കൂട്ടത്തിൽ വരുന്ന ആളല്ലേ അതു നമ്മൾ സാധാരണ ചെയ്യുന്ന ആ രീതി പോലെയൊക്കെ തന്നെ അങ്ങനെ ചെയ്യാം സാറെ അത് കുഴപ്പമില്ല ഞങ്ങൾ ഇത് കോട്ടയത്തു നിന്നാണ് കുഴപ്പമില്ല ഞങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം അതു കുഴപ്പമില്ല അത് നമ്മൾ ആ ഈ പറഞ്ഞ റേറ്റിൽ തന്നെ അതെല്ലാം ചെയ്തുകൊളളാം തിരിച്ച് അവിടെ കൊണ്ടുപോയി വിടാം തിരിച്ചവിടെ കൊണ്ടുപോയി വിടാം അത് കുഴപ്പമില്ല നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ആളെ എടുക്കാൻ എടുക്കണമല്ലോ അതാണ് ഞാൻ സ്ഥലം ആദ്യമേ ചോദിച്ചത് ആ നിങ്ങൾക്ക് ഈ പിന്നെ തിരക്കുള്ള ദിവസം അല്ലെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു ഈ ഈ വേറെ ഓട്ടങ്ങളൊക്കെ ഉള്ള ദിവസം മുമ്പേ ഡേറ്റൊന്ന് പറയുകയാണെങ്കിലേ ചൊവ്വാഴ്ച്ച പോയാൽ മതി ചൊവ്വാഴ്ച്ച ആണെങ്കിൽ കുഴപ്പമില്ല ചൊവ്വാഴ്ച്ചത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല പോകുവാൻ പറ്റും നമ്മൾ മാക്സിമം റേയ്റ്റ് കുറച്ചാണ് പറയുന്നത് വീണ്ടും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇത്രയും റേയ്റ്റ് താഴ്ത്തി പറയുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം സാറ് ഒരു കാര്യം ചെയ്യൂ ഫാമിലിയായിട്ട് ആലോചിച്ചിട്ട് സമയം ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി സമയമൊക്കെ പറഞ്ഞാൽ ഞങ്ങളതിനനുസരിച്ച് അവിടെ എത്തിക്കോളാം കേട്ടോ ഓക്കെ എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് സാറേ അതുകൊണ്ടാണെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ